ആ ഓക്കെ മേഡം നമുക്ക് ഇപ്പോൾ ഹോട്ടലിൽ സാധാരണ വരുന്ന മീൽസ് വരുന്നുണ്ട് മേഡം മീൽസ് ഫിഷ് ഫ്രൈസ് ഒക്കെ വരുന്നുണ്ട് മേഡം മേഡത്തിന് ഏത് ഫിഷ് ആണോ വേണ്ടത് അത് നമ്മൾ അഡ്ജസ്റ്റ് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ആ സീ ഫുഡ് ഉണ്ട് മേഡം നമുക്കൊരു ട്രഡീഷണൽ ആയിട്ട് വരുന്നതുകൊണ്ടാണ് സീ ഫുഡ് അധികം ആഡ് ചെയ്യാത്തത് ഷേക്ക് ഐറ്റംസ് നമുക്കുണ്ട് അത് നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം മേഡത്തിന് ഏത് ഷേക്ക് ആണ് വേണ്ടത് അത് നമ്മൾ ചെയ്ത് തരും ആ ഹ്യൂജ് ആണല്ലേ ഓക്കെ ഓക്കെ മേഡം വരുവോ എന്ന് കൺഫോം ആയിട്ട് നമുക്ക് ചെയ്താൽ മതിയല്ലോ അപ്പം മേഡം ആ കൺഫോം പറഞ്ഞുകഴിയുമ്പം അപ്പോൾ നമ്മൾ വേണ്ട ഐറ്റംസിൻ്റെ ലിസ്റ്റ് ഇട്ട് തരുവാണെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം അഡ്വാൻസ് പേയ്മെൻറ്റ് വേണം മേഡം കാരണം നമ്മൾ എന്താണ് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കൺഫോം പറയാണ്ടെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് എങ്ങാനും വരാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് അഡ്വാൻസ് കാരണം നമ്മൾ ഇത് വേറൊരു പാർട്ടിക്ക് കൊടുക്കാണ്ടൊക്കെ റൂമും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്യുന്നതാണല്ലോ റൂമിൻ്റെ നമുക്ക് ത്രീ സി ത്രീ പോയിന്റ് ഫൈവ് തൊട്ട് സ്റ്റാർട്ടിങ്ങ് ആണ് അതായത് മൂന്ന് അഞ്ഞൂറ് മുതൽ ആ എല്ലാം ഉണ്ട് ആ ഉണ്ട് ഉണ്ട് മേഡം സിംഗിൾ ബെഡ്റൂം അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടിങ് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് ആ എല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടാവും ബിരിയാണി നമുക്ക് ബീഫ് ചിക്കൻ പിന്നെ കാട പ്രോൺസ് ഒക്കെ ഉണ്ട് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് തരും ആ ഉണ്ട് മേഡം ബേക്കറി നമുക്ക് അല അവൈലബിൾ ആണ് ആ അറേഞ്ച് ചെയ്ത് തരാം ആ മോർണിംഗ് വേണമെങ്കിൽ നമുക്ക് ബ്രേക്ഫാസ്റ്റ് വേണമെങ്കിൽ ബുഫേ പോലെ ജസ്റ്റ് സെറ്റ് ചെയ്തുതരാം അതും ആ ഓക്കെ മേഡം വരുന്നതിന് മുമ്പ് ഒന്ന് കൺഫോം പറഞ്ഞുകഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഓ ഇതുംകൂടെ തന്നാൽ ലിസ്റ്റ് തന്നാൽ മതി നമ്മൾ അറേഞ്ച് ചെയ്തുതരാം